ഹലോ ചേട്ടാ ഞാൻ പുതിയതായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വന്നതായിരുന്നേ അപ്പം എൻ്റെ പ്രശ്നം എന്നു പറഞ്ഞുകഴിഞ്ഞാൽ വളരെ അണ്ടർ വെയ്റ്റാണ് അപ്പം ഇതിന് നമ്മൾ ഏത് എക്യുപ്മെൻ്റായിരിക്കണം ആദ്യം യൂസ് ചെയ്യേണ്ടത് ഡയറ്റ് പ്ലാൻ അല്ലേ ഈ ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും വിധത്തിൽ നമ്മൾക്ക് സഹായകരമാവുമോ ആ ആ

നമ്മൾക്ക് അപ്പം ഇതിൽ എക്യുപ്മെൻ്റ്സ് നമുക്കേതായിരിക്കും ഏറ്റവും യൂസ് വരുന്ന എക്യുപ്മെൻ്റ്സ് ഏതൊക്കെയായിരിക്കും അപ്പം നമുക്കിപ്പോൾ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് എക്യുപ്മെൻ്റാ ആശാനെ യൂസ് ചെയ്യണ്ടെ ആണല്ലേ അപ്പം നമുക്ക് കാലിന് വണ്ണം വെക്കണം എന്നുണ്ടെങ്കിൽ ഏത് എക്യുപ്മെൻ്റാ യൂസ് ചെയ്യേണ്ടത്

ഉണ്ടല്ലേ ആ നമ്മൾക്കിപ്പം ഈ ഹാൻഡ് സ്ട്രങ്ത് കൂട്ടണമെങ്കിലോ

ആ ആ എന്നാൽ ഓക്കേ യെസ് ആശാനെ എന്നാൽ ഞാൻ വിളിച്ചേക്കാം